ഹലോ സാർ ഞാൻ ദേവപ്രിയ ആണ്

ഞാൻ ദേവപ്രിയ ആണ് നാളെ എപ്പോഴാണ് എത്തേണ്ടതെന്നറിയാൻ വിളിച്ചതായിരുന്നു ആ ഓക്കെ ഫുഡൊക്കെ എടുക്കണോ വേണ്ട വെള്ളം

ഓ തന്നു തന്നു

ആ എനിക്ക് നാളെ പുതിയൊരു ബൂട്ട് വാങ്ങണം എന്റെ പട്ടി ബൂട്ട് കടിച്ചു അപ്പം നാളെ വാങ്ങണം പുതിയത് ആ അതിന് എത്ര റേറ്റ് ആവും സർ ആണോ കുറഞ്ഞ വിലേന്റെ മതിയാവുമോ ആ ആ അല്ല വീട്ടിൽ ഇത്തിരി ടയിറ്റ് ആണ് ഉണ്ട് ആ ആ ആ

വൈകുന്നേരം എത്ര മണിവരെ ആയിരിക്കും

ആ ആ ആ ആ ഓക്കെ സർ അപ്പോൾ പേരെന്റ്സ് വരണ്ടെ

എന്റെ വീട് പനവല്ലിയാണ് കാട്ടിക്കുളം കഴിഞ്ഞ് പോണം ആ ആ ആ നമ്മുടെ സ്ക്കൂളിന്റെ താഴേക്കൊരു വഴിയുണ്ട് സർ അതിൽക്കൂടി പോയാൽമതി ആ ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടാവും

ആ ആ ആ